ഈയിടെ ഞാൻ ഒരു വിലകൂടിയ ഒരു ഇയർഫോൺ വാങ്ങി അതിന് ഇത്രയും വില വരാൻ എന്താണ് കാരണമെന്ന് എന്നോടെല്ലാവരും ചോദിച്ചു അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണ് എനിക്ക് മെയിൻലി ഉള്ളത് അതിലെ നമ്മുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ആയാലും നമ്മൾ ഒരു ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ആയാലും നമ്മൾ ഒരു പാട്ടോ ഒരു സിനിമയോ ഒക്കെ അത് ഉപയോഗിച്ചു കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ആയാലും അതു വളരെ നല്ലതാണ് ആ വില കൊടുത്തു അത് വങ്ങിയതിൻ്റെ ഉപയോഗം എനിക്ക് അടുത്ത ദിവസം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ പഴയ ഇയർഫോൺ വച്ച് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിന് അകത്തോട്ടു മാറിയപ്പോൾ ആ ഒരു ഉണ്ടായ വ്യത്യാസം വളരെ വലുതായിട്ട് എനിക്ക് ഫീല് ചെയ്യാൻ പറ്റി അതു മാത്രമല്ല അതിൽ പല പല ഫീച്ചേർസ് വേറെയും ഉണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കാനുള്ള പ്രത്യേക സോഫ്റ്റ് വെയറുകൾ അത് അല്ലാതെ മാത്രമല്ല ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുകയോ അങ്ങിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ ആയിട്ട് അതായത് രണ്ടു ചെവിയിലും ഇയർഫോൺ വച്ചാൽ പോലും നല്ല രീതിയിൽ മറ്റ് ആൾക്കാർ വെളിയിൽ നിന്നു പറയുന്നത് ആൾക്കാർ പറയുന്നതു കേൾക്കാനയിട്ടുള്ള സംവിധാനങ്ങളും അതിലുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ആ ഒരു വില കൊടുത്ത് എനിക്ക് അതു വാങ്ങിയതിൽ ഒട്ടും നിരാഹാരമില്ല എനിക്ക് അത്രയും നല്ല ഒരു പർച്ചേസ് ആയിട്ടാണ് എനിക്ക് അതു തോന്നിയത് ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു പോവാൻ സാധിക്കുന്നു പിന്നേ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതിൻ്റെ ബാറ്ററി തന്നെയാണ് ഒരുവട്ടം ചാർജ് ചെയ്താൽ മൂന്നോ നാലോ ആഴ്ച നമുക്ക് അതു നോക്കുകയേ വേണ്ട അത്രയും നല്ല ബാറ്ററിയാണ് അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടുതീർത്താൽ പോലും ബാറ്ററിക്ക് ഒന്നും ഒട്ടും കുറവു വരാറില്ല നല്ല രീതിയിൽ ബാറ്ററി നിൽക്കുന്നത് കൊണ്ട് അത് പോലെ തന്നെ അത്രയും നല്ല സൌണ്ട് ക്വാളിറ്റിയും തരുന്നത് കൊണ്ട് അതു വല്ലാണ്ട് ഇതേ പോലത്തെ ഈ ഫീച്ചറുകളും ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കാനും എല്ലാത്തിനുമുള്ള ഫീച്ചേർസും എല്ലാം കൂടി ചേർത്ത് വളരെ നല്ല ഒരു പർച്ചേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്